ഹലോ ആരാണ്

എവിടെത്തെയാണ് എവിടെത്തെ ഇറച്ചി കറിയപ്പള്ളീലെയോ കറിയപ്പള്ളിയല്ല ഞാൻ മാർക്കറ്റിലെ ഇറച്ചിക്കടയാ നിങ്ങൾ ആ ആ ഞാൻ മാർക്കറ്റിലെ ആണാ അപ്പം ബോധവിലല്ലേ അപ്പം ബോധവില്ല ആദ്യം പറഞ്ഞപ്പത്തന്നെ ഹ് ആ ഓ ഓ ആ ആ ആ അല്ല ഞങ്ങൾക്കിവിടെ എല്ലാ ഇറച്ചിയുള്ളതാ ആ ഞായറാഴ്ച്ച ഞങ്ങളിവടെ അന്നന്ന് വെട്ടി അന്നന്ന് വെട്ടി അന്നന്ന് കളയുന്ന ഇറച്ചിയാണ് അത് ചീത്തയാകുവാണെൽ അന്നന്ന് കളഞ്ഞേക്കും

കറക്റ്റ് നിങ്ങൾ നിങ്ങളാദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത് കട ഇത് കറിയപ്പള്ളീന്നാ പറഞ്ഞത് എന്റെ കട തന്നാണോ കറക്റ്റ് കറക്റ്റ് എന്റെ കട തന്നാണോ ആണോ ആണോ ഹസ്ബൻറ്റ് തന്നായിരുന്നോ എത്ര എന്തുമാത്രം ചിക്കെൻ ഒരു കിലോ ബീഫും ഒരു കിലോ ചിക്കനും ആ ചിക്കൻ കറിയപ്പള്ളീന്ന് ആ

ആ

ആ ആ നിങ്ങളെപ്പഴാണ് നിങ്ങൾ നിങ്ങളെപ്പഴാണ് വാങ്ങിച്ചതിത് എത്ര മണിക്കാണ് വാങ്ങിച്ചത് ആ ഞായറാഴ്ച്ച വാങ്ങിച്ചത് അത് സമയെത്രായെന്ന് ഓർമ്മയുണ്ടോ

അല്ല അന്ന് തന്നെ കറി വെച്ചോ ഫ്രിഡ്ജി വെച്ച് കറി വെച്ചു ഫ്രിഡ്ജി വെച്ചില്ല ഞങ്ങൾ ഫ്രിഡ്ജി വെയ്ക്കന്നതല്ല ഞങ്ങൾ ഫ്രിഡ്ജി നിങ്ങൾ ചോദിച്ചു ഞങ്ങൾ ഫ്രിഡ്ജി വെച്ചൊന്ന് ചോദിച്ച് ഞങ്ങളന്നന്ന് വെട്ടുന്ന സാധനം അന്നന്ന് തന്നെ കൊടുത്ത് മാറ്റുവാ ചെയ്യുന്നത് ബാക്കി ഉണ്ടെങ്കിൽ പിന്നെടുക്കത്തില്ല ആ പക്ഷേ ഇവിടുന്ന് വേറെ ഇവിടുന്ന് മാ നിങ്ങൾക്കറിയാല്ലോ മാർക്കറ്റിലെന്ന് പറയുമ്പം നമ്മുടെ ആലപ്പുഴ പ്രദേശത്തെ എല്ലാവരും വരുന്ന ഞാനതാണ് ചോദിച്ചത് കറിയപ്പള്ളിയല്ല മാർക്കറ്റാണ് അതെവിടുന്നക്കെ വരുന്നവരാണ് ആരും ഇതുവരെ ഒരു കമ്പ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല

ഏയ് ഇല്ല നമ്മളങ്ങനൊന്നും ഞങ്ങളങ്ങനൊന്നും വെച്ചിട്ടില്ല ആ ആ അത്

ആ ആ അപ്പം നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങളെല്ലാ ഞായറാഴ്ച്ച ഇവിടുന്നാണോ വാങ്ങിക്കുന്നത് എപ്പോഴും ആടുന്ന് ആ ആ അപ്പം ഒരു കാര്യം ചെയ്യ് ഇതിപ്പോൾ നമ്മുടെ ഭാഗത്തൂന്ന് ആരും കമ്പ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല നമ്മുടെ ഭാഗത്തൂന്ന് വന്ന കുഴപ്പവാണ് ഇപ്പം നിങ്ങൾ വിളിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ഞാനിത് കച്ചോടക്കാരനെന്ന നിലയിൽ ഞാനന്നെ പിന്നെ പിന്നെ അംഗീകരിക്കുന്നു അതിപ്പം ഏതെങ്കിലും കാരണവശാൽ ഇത്രയും ദിവസമല്ല ഞായറാഴ്ച്ച കഴിഞ്ഞിട്ടിന്നിപ്പം വ്യാഴാഴ്ച്ച ദിവസവായി അത് പിറ്റേ ദിവസന്തന്നെ നിങ്ങൾ പറയേണ്ടതായിരുന്നു അത് നിങ്ങളുടെ ഭാഗത്തുള്ള കുഴപ്പം അതിപ്പം ഏതായാലും ആ ആ ആശൂത്രീപ്പോയ് ആ അതുപോട്ടെ ഇനിയിപ്പം അടുത്ത തവണ ഞങ്ങളത് ഇനീപ്പം നിങ്ങൾ വരുമ്പോഴത്തേന് അത് എന്നെ ഒന്നോർപ്പിച്ചാൽ മതി അതിന് എന്തെങ്കിലും രീതീലുള്ള ഡിസ്ക്കൗണ്ട് തരാം അതുകൊണ്ട് ക്ഷമിക്കുക കേട്ടോ ശരി ശരി ആ ആ ആ ആ എന്നാപ്പിന്നെ അത് കുഴപ്പമില്ല അത് പോട്ടേ മറ്റേത് ഇനി എന്താ അത് എന്തെങ്കിലും രീതീൽ നമുക്ക് കൈകാര്യം ചെയ്യാം അതിവിഡാങ്കൊണ്ടങ്ങ് കഴിഞ്ഞേര് കേട്ടോ ശരിയെന്നാൽ ഓക്കെ